നമ്മൾ മറ്റ് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതിലേറെ ഏറ്റവും രസകരമായ യാത്രയാണ് ബൈക്കിലുള്ള യാത്ര എന്ന് പറയുന്നത് ബൈക്കിലുള്ള യാത്ര ഒരേ സമയം നമുക്ക് എന്താ ഗുണവുമാണ് ദോഷവുമാണ് എന്നാൽ ബൈക്കിലുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് ടൂളുകൾ നമ്മുടെ കയ്യിൽ കരുതുന്നത് വളരെയധികം നല്ലതാണ് പെട്ടെന്ന് എന്തെങ്കിലും പഞ്ചറാവുക അങ്ങനെയൊക്കെ ചെയ്താലോ എന്തെങ്കിലും വൈറ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ എങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടായാൽ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് അതിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും ബേസിക്കായിട്ട് ബൈക്കിൽ പോകുന്നവർ കയ്യിൽ കരുതേണ്ട ഒരു ടൂളാണ് സ്പാനറ് സ്പാനറ് വിവിധതരം സ്പാനറുകളുണ്ട് അത് നമുക്ക് നമ്മളെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളതാണ് അത് നമ്മളെ ബൈക്കിൻ്റെ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്പാനറ് വേണം തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സ്പാനറുകളിൽ വലുതും ചെറതും ഉണ്ട് അതിൽ എപ്പോഴും നമ്മൾ കയ്യിൽ ഒരു വലുതും ഒരു ചെറുതെങ്കിലും എന്തായാലും കരുതണം കാരണം ചെറിയതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സ്പാനറും വലിയ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പാനറും നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ വീൽനെറ്റ് അതായത് വീൽ നെട്ട് അതേപോലെ നമ്മൾ വീലിലുണ്ടാവുന്ന നെട്ടൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പാനറ് വേണം അതാണ് വലിയ സ്പാനറ് അതുപോലെ വീലിലുണ്ടാവുന്ന വലിയ നെട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പാനറും ചെറിയ നെട്ടുകളൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പാനറും നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് അതുപോലെ വേറൊരു ടൂളാണ് ടീ സ്പാനർ എന്ന് പറയുന്നത് ഇതും നമുക്ക് ഒരു ടീ ഷേപ്പിലുള്ള സ്പാനറാണ് ടി സ്പാനർ എന്ന് പറയുന്നത് അത് നമ്മുടെ ബൈക്കിൻ്റെ ഉള്ളിലുള്ള നെട്ടും ബോൾട്ടൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പാനറാണ് ടി സ്പാനറ് പിന്നെ ഉള്ളതാണ് റിംഗ് സ്പാനറ് റിംഗ് സ്പാനറും നമുക്ക് ഇതുപോലെ എന്താ അത്യാവശ്യമായിട്ട് ബൈക്കിൽ വരുന്ന അറ്റ കുറ്റപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പിന്നെ നമ്മൾ അത്യാവശ്യം കൊണ്ട് നടക്കേണ്ടതാണ് അലൻ കി എന്ന് പറയുന്നത് കൂടാതെ ഒരു സ്ക്രൂഡ്രൈവറിൻ്റെ ഒരു സെറ്റും നമ്മളെ കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതാണ് പലതരം അഴിച്ചുപണികളും ചിലപ്പോൾ ബൈക്ക് യാത്രക്കിടയിൽ വേണ്ടി വരും അപ്പം ഒരു സ്ക്രൂഡ്രൈവറിൻ്റെ സെറ്റ് ഉണ്ടായാൽ അതിൽ പലതരം കേസും ഉണ്ടാകുന്നതാണ് അതേപോലെ ഓയിൽ ക്യാപ്പൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് പ്ലെയറ് വേണം കട്ടിംഗ് പ്ലെയറ് എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഓയിൽ ക്യാപ്പ് അഴിക്കാൻ കട്ടിംഗ് പ്ലെയർ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെ സഹായകരമാണ് അതുപോലെ വേണ്ട ഒരു സ്പാനറാണ് പ്ലഗ് സ്പാനറ് അങ്ങനെ ഇപ്പം നമ്മൾ കയ്യിൽ വേണ്ട സ്പാനറുകളിൽ ധാരാളം നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഈ സ്പാനറുകൾ തന്നെയാണ് വേണ്ടത് എന്ന് അതുപോലെ ബോക്സ് സ്പാനറ് അത് നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലെ റിമാർക്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൽ നമ്മളിപ്പോൾ ഒരു ബൈക്ക് യാത്രയിൽ ഉപയോഗിക്കുന്ന ഓരോ ടൂളും അത് നമ്മളെ ബൈക്കിൻ്റെ വീലിൻ്റെയും നമ്മൾ അതിലുള്ള നെറ്റിൻ്റെയും ബോൾട്ടിൻ്റെ ഒക്കെ സൈസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഓരോ ടൂളുകളും ഈ യാത്രക്കിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ മെക്കാനിക്കൽ പ്രശ്നം വന്നാൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് അതൊക്കെ പരിഹരിക്കാവുന്നതാണ് കാര്യമായിട്ടും ചിലപ്പോൾ നമുക്ക് വരുന്നത് ടയറ് പഞ്ചറാവുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയി പ്രശ്നം പരിഹരിക്കേണ്ടതാണ് ഇതിന് മുൻപ് എനിക്കിതുവരെ യാത്രയ്ക്കിടയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ടയറ് പഞ്ചറായി എന്നല്ലാതെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല